ഈ ഞാനുണ്ടല്ലോ സ്പോര്ട്ട്സിലുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകതയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒത്തിരി തടി വെക്കില്ല നമുക്കൊരു ഒരു ഫിറ്റ്നസ് ബോഡിയിലൊരു ഫിറ്റ്നസ് നമുക്കെപ്പോഴും ഉണ്ടാവും എല്ലാവര്ക്കും ഓടാന് പറ്റും എന്നല്ല ഞാന് ചെറുപ്പം മുതലേ ഓടുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല ഞാന് പത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നൊരാളാണ് ആ ഒരു ഫിറ്റ്നസ് ഇപ്പോഴും കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് ഓവർ തടി വെക്കാതെ ഒരു ഒരു കോണ്ഷ്യസ് മൈന്ഡോടെ നമ്മള് ഒന്നുകിൽ നടക്കുക അല്ലെങ്കില് ഓടുക ഇപ്പോഴും വല്ല ഓട്ടമത്സരമൊക്കെ ഉണ്ടെങ്കിലും കൂടും കേട്ടോ ഒരു മടിയൊന്നും ഇല്ലാതെ കൂടും അപ്പോൾ നമ്മളീ ഓട്ടം നമ്മളെ ഫിറ്റ് ആക്കും ആരോഗ്യത്തെ ഫിറ്റാക്കുന്നു നമ്മുടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നെനിക്കു പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ നമ്മളിങ്ങനെ വര്ക്ക് ഓട്ടം തന്നെ ഒരു വർക്കൗട്ടാണ് നമ്മളീ ജിമ്മിലും ഈ ജിമ്മിൽ പോയി ചെയ്യുന്ന വർക്കൗട്ടു പോലെയാണ് ഓട്ടം അപ്പോൾ നമ്മുടെ കാലറിയൊക്കെ നമ്മുടെ വിയര്പ്പില് നിന്ന് റിമൂവാവുകയാണ് ചെയ്യുന്നത് ഈ ഓടുന്നതിലൂടെ ഒക്കെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ എന്നെ നല്ല രീതിയില് ഓട്ടം എൻ്റെ ബോഡി ഫിറ്റായിരിക്കാന് സഹായിച്ചിട്ടുണ്ട്